ഇന്നത്തെക്കാലത്ത് സ്മാർട്ട് ഫോണെല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് സ്മാർട്ട് ഫോണില്ലാതെയൊരു കാര്യങ്ങളും മുന്നോട്ട് പോകില്ലയെന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എൻറ്റെ പേമെൻ്റ് ചെയ്യാനും ഇപ്പോൾ മൂവി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനും ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഹോട്ടലിൽ ബുക്ക് ചെയ്യാനും ബാങ്കിങ്ങ് ഷോപ്പിങ്ങ് പേമെൻറ്റ് എല്ലാ കാര്യങ്ങൾക്കും സ്മാർട്ട് ഫോണിൻറ്റെ യൂസുണ്ട് എല്ലാ കാര്യങ്ങളും സ്മാർട്ട് ഫോണിൻറ്റെ യൂസുണ്ടപ്പം നമുക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും തന്നെ സ്മാർട്ട് ഫോണില്ലാണ്ട് പറ്റില്ലയെന്നുള്ളൊരു സിറ്റ്വേഷനിലാണ് ഇതു വളരെ നല്ലതായിട്ടും യൂസ് ചെയ്യുക ഒരു ഒരു ഒരു സൈഡിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ വളരെയധികം ഹെൽപ്ഫുള്ളാണ് പിന്നെ അത് മോശമായിട്ടും ഉപയോഗിക്കാം അല്ലാണ്ടുപയോഗിക്കാം സ്മാർട്ട് ഫോൺ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടാണ് എല്ലാ കാര്യങ്ങളിലും ഇപ്പം നമുക്ക് എന്താ ഗൂഗിൾ മാപ്പ് നമുക്കിപ്പെവിടെ പോകണമെന്നു വെച്ചിട്ടുണ്ടെങ്കിലും വഴിയറിയില്ലെങ്കിലൊന്ന് നമുക്ക് ഒരു ഫോണുണ്ടെങ്കിൽ നമുക്കെവിടെ വേണമെങ്കിലും ചെന്ന് ചെന്നെത്താൻ പറ്റും പിന്നെ പേമെൻറ്റ് ഇപ്പം നമ്മുടെ കൈയ്യിൽ പൈസയില്ലെങ്കിലെന്ന് നമ്മുടെ അക്കൗണ്ടിൽ പൈസയുണ്ടേ നമുക്ക് അങ്ങനെ ഓൺലൈൻ പേമെൻ്റ് ചെയ്യാം പിന്നെ ഒരു റൂമിൽ ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുവാ നമ്മുടെ ഫോൺ മതി ഫോൺ വെച്ചിട്ട് തന്നെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും പിന്നെന്താ ടിക്കറ്റുകൾ മൂവി ടിക്കറ്റുകൾ അങ്ങനെയെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് പറ്റും നമ്മൾക്കിപ്പം എന്തു കാര്യങ്ങളും ഓൺലൈൻ വഴി അവൈലബിളായിട്ടുള്ളൊരു സിറ്റ്വേഷനാണ് ഇപ്പോൾ ഉള്ളത് അപ്പം നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് എല്ലാ കാര്യങ്ങളിലും തന്നെ വളരെ ഹെൽപ്ഫുള്ളാണ് പണ്ടത്തെ കാലത്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ പേമെൻറ്റോ കാര്യങ്ങളോ എങ്ങനെ ഓൺലൈൻ സ്മാട്ട് ഫോണേയില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെക്കാലത്തെന്നു വെച്ചാൽ സ്മാട്ട് ഫോൺ സ്മാർട്ട് ഫോണിൻറ്റെ യൂസ് ഒരുപാട് നമ്മളുടെ എന്താ നമ്മളുടെ ലൈഫിനേ ഇതു ചെയ്യുന്നുണ്ട് പിന്നെ അതു വളരെ ഞാൻ നോക്കിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ് നമുക്ക് എല്ലാ കാര്യങ്ങളിലും തന്നെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഉള്ള ഇതാണ് സ്മാർട്ട് ഫോൺ ഒരു കാര്യത്തിനും നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ല സ്മാർട്ട് ഫോൺ ഉള്ളതു കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല എന്തു കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഓൺലൈൻ വഴി കിട്ടും എന്താ നമുക്കിപ്പെന്തു വേണമെന്നുണ്ടെങ്കിലും പല പല ഓൺലൈൻ ആപ്പുകളുണ്ടല്ലോ നമുക്കവിടെ നിന്ന് ബുക്ക് ചെയ്യാം എന്തു വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്തു മേടിക്കാം വരുത്താം എന്തു വേണമെങ്കിലും ചെയ്യാം അതു കൊണ്ട് കുഴപ്പമില്ല എന്തു വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമുക്കെന്താവശ്യമുണ്ടോ അതു നമ്മുടെ കയ്യിലെത്തുന്നൊരു സിസ്റ്റമായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട് ഓൺലൈൻ ഇതു മാധ്യമങ്ങൾ സ്മാർട്ട് ഫോണൊക്കെ പിന്നെ ഇൻറ്റർനെറ്റിൻറ്റെ യൂസെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളാവശ്യമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇൻറ്റർനെറ്റില്ലാണ്ട് പറ്റില്ല നമ്മൾ എല്ലാ കാര്യങ്ങളിലും തന്നെ ഇൻറ്റർനെറ്റ് യൂസ് ചെയ്താണല്ലോ ഫോൺ യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് എന്ത് ഒരുപാട് കാര്യങ്ങളിൽ ഇൻറ്റർനെറ്റ് വെച്ച് എന്തെല്ലാം ചെയ്യാമോ നമുക്കൊരുപാട് ഹെൽപ്ഫുള്ളുമുണ്ട് അതേ പോലെ തന്നെ നമുക്ക് യൂസ്ഫുള്ളല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ദുരുപയോഗം അങ്ങനെക്കെയുണ്ടാവുക ഉണ്ടാകാനുള്ള ഇതു കൊണ്ട് അപ്പം നമ്മൾ നമ്മളുടെ ഒരു നല്ല രീതിയിൽ എല്ലാം യൂസ് ചെയ്യുക എന്നുള്ളതേയുള്ളു